ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവധി ദിവസങ്ങൾ ഒക്ടോബർ ഇരുപത്തിനാല് റിപ്പബ്ലിക് ഡേ ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനം ദീപാവലി ദസറ ഹോളി ക്രിസ്തുമസ് എന്നിവയൊക്കെയാണ് ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനം ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് അത് വളരെ സന്തോഷത്തിൻ്റെ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് അതിന് നമ്മൾ ഗാന്ധിജിയേയും നെഹ്റു തുടങ്ങിയ വലിയ സമര നേതാക്കളെ നമ്മൾ ഓർത്തുകൊണ്ട് പാട്ടുകളും പരിപാടികളും എല്ലാം അവതരിപ്പിക്കുന്നു കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഈ ആഘോഷത്തിൽ പങ്കുചേരുന്നുണ്ട് സ്കൂളുകളിലും ഓഫീസുകളിലും എല്ലാം ഇതിൻ്റെ ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ചില നാടുകളിലും എല്ലാവരും ഇത് ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയുടെ പതാകയേന്തി കുട്ടികളുടെയെല്ലാം ആഘോഷ പ്രകടനങ്ങൾ നമുക്ക് കാണാവുന്നതാണ് മധുരം നല്കിയിട്ടാണ് സ്വാതന്ത്ര്യ ദിനത്തെ നമ്മൾ അത് വരവേൽക്കുന്നത് എന്തുകൊണ്ടെന്നു വെച്ചാൽ നമുക്ക് സ്വാതന്ത്യം കിട്ടിയ ദിവസമായതുകൊണ്ട് വളരെ സന്തോഷത്തിൻ്റെ ദിവസമായിട്ടാണ് നമ്മളതിനെ കാണുന്നത് പിന്നെ ദീപാവലിയാണ് അടുത്തൊരു ആഘോഷ ദിവസമായിട്ടുള്ള ഇന്ത്യയിലുള്ളത് ദീപാവലിക്ക് പടക്കങ്ങൾ പൊട്ടിച്ചുകൊണ്ടും പിന്നെ വളരെ സന്തോഷത്തോടു കൂടി തെരുവു വീഥികളിൽ കുട്ടികളേയും മുതിർന്നവരേയും എല്ലാരേയും കാണാം പിന്നെ പൂജാ ഹോളീഡേ പൂജാ ഹോളീഡേ ഇന്ത്യയിൽ മൊത്തം ഉള്ളൊരു ആഘോഷമാണ് പൂജാ ഹോളിഡേയ്ക്ക് മൂന്ന് ദിവസത്തെ സരസ്വതിയെ സരസ്വതിയെ നമ്മൾ പൂജിച്ചു കൊണ്ടാണ് നമ്മൾ പൂജാ ഹോളിഡേ നമ്മൾ വരവേൽക്കുന്നത്